ഞങ്ങൾ താമസിക്കുന്ന പ്രദേശമെന്നു പറഞ്ഞാൽ കുമരകമാണ് കുമരകത്താണ് ധാരാളം വിനോദ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണല്ലൊ കുമരകം അപ്പം അവിടെ മാർക്കറ്റിൽ ചെന്നുവെന്നു എന്നു വെച്ചാൽ കുമരകം ചന്തയേക്കാൾ ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സൂപ്പർ മാർക്കെറ്റുണ്ട് ഫാമിലി മാർട്ടെന്നു പറഞ്ഞ സൂപ്പർ മാർക്കെറ്റുണ്ട് അവിടെ എന്നും ആൾ ആൾക്കാർ ഇഷ്ടം പോലെ സാധനങ്ങൾ നല്ല ഇപ്പം നല്ല ഗുണ നിലവാരത്തിലുള്ള സാധനങ്ങളൊക്കെ ആ അവിടെ കിട്ടും അപ്പം ആ ഒന്നും വലിയ വില വിലയൊന്നും കൂടുതലില്ല എല്ലാ സാധാരണ വില തന്നെയാണ് ഉള്ളു ഇവിടെ ആ ആൾക്കാർക്ക് താങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത സാധന എല്ലാ സാധനങ്ങളും ഉണ്ടാകും അതു പിന്നെ മീൻ പച്ചക്കറി എല്ലാ സാധനങ്ങളും കുമരകത്ത് ധാരാളം കിട്ടും